മൽസ്യ മൽസ്യബന്ധനം അത്ര എളുപ്പമുള്ള പരിപാടിയല്ല അപ്പം അതിനായി നമ്മള് നമ്മുടെ ചെറുതുമുതലെ നമ്മളതിന് പരിശ്രമിക്കുകയും നമ്മളതുപോലെ നമ്മളെ വളർത്തിയെടുക്കുകയും ചെയ്താലേ അതായത് പരിശ്രമത്തിലൂടെ നമ്മളെത്തന്നെ നമ്മള് വളർത്തിയെടുക്കണം നമ്മുടെ കഴുവുകളെ നമ്മള് വളർത്തിയെടുത്താൽ മാത്രമേ നമുക്ക് വിചാരിക്കുന്ന രീതിയിൽ മത്സ്യത്തെ ബന്ധിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം രീതിക്ക് അനു അനുയോജ്യമായി നമുക്ക് കാര്യങ്ങള് ചെയ്യാനും സാധിക്കുകയുള്ളു നമ്മളൊരോ കാര്യങ്ങള് നമ്മള് വീണ്ടും വീണ്ടും വീണ്ടും ശ്രമിച് അതിൻ്റെ ആ ഒരു കാര്യത്തിൽ നമ്മള് ഒരു ഒരു പ്രാബല്ല്യം ഒരു പ്രബലത കണ്ടെത്തുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് എപ്പോഴും ഒരു ഗുണമായിത്തന്നെ നമ്മുടെ ഭാവിയിലും നമ്മുടെ ഭാവി തലമുറക്കും ഉണ്ടാകുന്നതാണ് മത്സ്യബന്ധനത്തിലെ രസകരമായ കാര്യമെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിൻ്റെ ഒരു ഒരു ഒരു വെല്ലിവിളിയാണ് നമുക്ക് അതായത് നമുക്ക് കടലിലുള്ള മത്സ്യത്തെ നമ്മള് പിടിച് പിടിക്കാൻ ശ്രമിക്കുക അതായത് കരയിൽ ജീവിക്കുന്ന മനുഷ്യൻ കടലിലുള്ള മത്സ്യത്തെ പിടിക്കുക ആ ഒരു സാഹചര്യം ആ വെല്ലുവിളി സ്വീകരിക്കുന്നത് ഒരു രസകരമായ കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത് നമുക്ക് അത് നമ്മുടെ ഒരു ജീവിത മാർഗമായിട്ടെടുത്ത് കഴിഞ്ഞാല് അത് നമുക്ക് എന്നുമൊരു ഒരു ഒരു രസകരമായ കാര്യം തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കും അപ്പം നമ്മുടെ ഞാനെൻ്റെ മക്കളെ അത് വരും തലമുറയെ ഞാനത് പഠിപ്പിക്കുയോ ഇല്ലയോ എന്ന് ചോദിച്ചുകഴിഞ്ഞാല് അവരും ഇതുപോലെ തന്നെ ചെയ്യണം അല്ലേല് കട കടലിലെ സമ്പത് വ്യവസ്ഥ നമുക്കും കൂടെ അവകാശപ്പെട്ടതാണ് എന്നൊരു ഒരു ചിന്ത ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാം എന്നതുകൊണ്ടും ഇത് ഒരു നല്ലൊരു ഇതായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് എൻ്റെ വരും വരും തലമുറയും ഇത് പിന്തുടരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമുണ്ട് അങ്ങനെ ആകുമ്പോൾ അവർക്കും ഇതിലെ ഓരോ കാര്യങ്ങള് മനസിലാക്കുകയും അല്ലെൽ അവരുടെ തലമുറക്കാര് അതായത് അപ്പൻ അപ്പൂപ്പന്മാരായിട്ട് ചെയ്തുകൊണ്ട് വന്നിരുന്ന കാര്യങ്ങൾ മു പിൻതുടരാനുള്ളൊരു ഒരു കഴിവ് അവരിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കിയെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ നമുക്ക് മൽസ്യ മൽസ്യബന്ധനത്തിനുണ്ടാകുന്ന കുറെ എന്താ എന്തുവാ പറയുന്നത് ഇതുപോലെ കുറെ പ്രതിരോധമായി അതായത് നമ്മളെ ഒരു ജീവി ജീവിതത്തില് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ പലതാണ് അതുപോലെ തന്നെയാണ് ഇതുപോലെ മത്സ്യബന്ധനത്തിൽ നമുക്കുണ്ടാകുന്ന കഷ്ടതകളും കഠിനമായ കാര്യങ്ങളും നമ്മളതിനെ ജീവിതമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മള് ജീവിതത്തില് മുന്നോട്ട് അനുഭവിക്കുന്ന ഓരോരോ വിഷമ ഘട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു കാര്യത്തിലും നമുക്കുണ്ടാകും നമ്മള് അതിനെയെല്ലാം തരണം ചെയ്യണം തരണം ചെയ്യുമ്പോളാണ് നമുക്ക് അതിലൊരു വിജയം കണ്ടെത്താനാകുന്നത് അതുപോലെതന്നെ നമ്മുടെ ഏകാകൃത മത്സ്യബന്ധനത്തിന് നമുക്കത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളത് നേടിയെടുത്തിരിക്കുക തന്നെ വേണം അതുതന്നെയാണ് എൻ്റെ വരും തലമുറയ്ക്കും പകർന്നുകൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അവരും ഇതുപോലെതന്നെ ഈ ഒരു കലയെ ഇതിനെയൊരു കല എന്ന് വിളിക്കാൻ തന്നെയാണ് എനിക്കൊരു എനിക്ക് താല്പര്യം അതുപോലെ തന്നെ ഈ ഒരു കലയെ അവരുടെ അവരുടെ ജീവിതത്തിൽ പ്രാബല്യവും ആക്കിയെടുക്കാനും അവരുടെ ജീവിതം അതനുസരിച്ച് മുന്നോട്ട് നയിക്കാനും അവർക്ക് സാധിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു